ഓരോ സീസണുകളിലും ഓരോരോ രോഗങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും മഴക്കാലത്താണെങ്കില് നമുക്ക് കൊതുകുകളെ കൊണ്ട് പനി ഉണ്ടാവാറുണ്ട് ചിക്കൻഗുനിയ മലേറിയ ഇങ്ങനുള്ള പനികളൊക്കെ നമ്മുക്ക് മഴക്കാലത്ത് ഉണ്ടാവും പിന്നെ എലിപ്പനി വരാറുണ്ട് ഡെങ്കിപ്പനി വരാറുണ്ട് ഇതൊക്കെ നമുക്ക് മഴക്കാലത്തുള്ള പനികളാണ് അത് കൊണ്ട് കൂടുതൽ നമ്മള് കുട്ടികളെ ശ്രദ്ധിക്കുക പുറത്ത് വിടാതിരിക്കുക അത്പോലെ മഴക്കാലത്ത് വെള്ളം എവിടെങ്കിലും ചിരട്ടയില് എവിടേങ്കിലും വെള്ളം കെട്ടി കിടക്കുവാണെങ്കിൽ അതൊക്കെ നമ്മള് നീക്കം ചെയ്യേണ്ടതാണ് കഴിയുന്നതും വെള്ളം എവിടെയും കെട്ടി നിൽക്കാതെ നമ്മള് ചാലുണ്ടാക്കി വിടേണ്ടതാണ് അതേപോലെ വേനക്കാലത്താണെങ്കിലും ചൂട് കൂടിയവർക്ക് ചൂടുകുരു ഉണ്ടാവാറുണ്ട് അത്കൊണ്ട് നമ്മള് കഴിയുന്നതും വെയിലത്ത് ഇറങ്ങാതിരിക്കുക ചൂട് കൂടുമ്പോൾ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവാറുണ്ട് അതേപോലെ തണുപ്പ് കാലത്ത് കഴിയുന്നതും നമ്മള് ചെരുപ്പ് ഉപയോഗിക്കുക കാരണച്ചാൽ വാത രോഗമായ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പല തരത്തിലുള്ള വാതങ്ങളും ഉണ്ടാകാറുണ്ട് അത്കൊണ്ട് നമ്മള് കഴിയുന്നതും തണുപ്പ്ക്കാലത്ത് നമ്മൾ ചൂടുള്ള വസ്ത്രങ്ങൾ ഇട്ട് കൊണ്ട്നടക്കാൻ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ പനിയായാലും ജലദോഷായാലും ഇ മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അതേപോലെ മഴക്കാലത്ത് നമ്മൾ തണുത്ത ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക കോളറ പോലെയുള്ള പല അസുഖങ്ങളും നമുക്ക് വരാൻ ഇടയാവാറുണ്ട് അത്കൊണ്ട് മഴക്കാലായ നമ്മള് കഴിയുന്നതും നമ്മള് ചൂടുള്ള ഭക്ഷണം ഉപയോഗിക്കാൻ നോക്ക് ആ ഇത്തരം രോഗങ്ങളെ നമുക്ക് കഴിയുന്നതും നമ്മൾ തടയുകയും അതിന് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്